എനിക്കറിയാവുന്ന ചില ചില്ലറമൊത്ത വ്യാപാര വിപണികള് എന്ന് പറയുന്നത് എന്റെ നാട്ടില്ത്തന്നെ ഉള്ള പല വിപണികളുമാണ് പലരും അങ്ങനെ ഒരുപാട് അറിയപ്പെടുന്നത് കടയാണെന്ന് എനിക്ക് അവകാശപ്പെടാന് പറ്റില്ല നമ്മുടെ നാട്ടിലുള്ളവര്ക്കൊക്കെ അറിയാവുന്നത് മാത്രം പിന്നെ പലചരക്ക് പച്ചക്കറികളുടെ വിലയിലെന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഈയിടെയായിട്ട് കുറച്ച് വര്ഷങ്ങളായിട്ട് പലചരക്ക് പച്ചക്കറി അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വില വളരെ അധികം വര്ദ്ധിച്ചോണ്ടിരിക്കയാണ് ആളുകള്ക്ക് ജീവിതം തന്നെ ഒരു എന്താപറയാ ദുസഹമായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകള്ക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അവര്ക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുകായെന്ന് പറയുമ്പോൾ അവരുടെ വില സാധനങ്ങളുടെ വില കൂടുന്നതിനോടൊപ്പം അവരുടെ ശമ്പളത്തിന്റെ ശമ്പളത്തിലൊന്നും വര്ദ്ധനവുണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ടു തന്നെ അവര്ക്ക് മിച്ചം പിടിക്കാന് കിട്ടുന്ന തുകയൊക്കെ വളരെ കുറഞ്ഞ് വരികയാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ബുദ്ധിപ്പം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുള്ളൊരു നാടാണ് നമ്മുടെ അതിന്റെ കൂടെ വിലക്കയറ്റവും കൂടെ ആകുമ്പോഴത്തേക്കും അവര്ക്ക് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് അവരെല്ലാവരും പോകുന്നത് ഓണ്ലൈന് ഷോപ്പിങ്ങിനെ പറ്റിയുള്ള ഒരഭിപ്രായം എന്ന് പറഞ്ഞാൽ ഓണ്ലൈന് ഷോപ്പിംഗ് ഓണ് നമ്മൾ മേടിക്കുന്ന വസ്തുവിനെ അനുസരിച്ചിരിക്കും ഓണ്ലൈന് ഷോപ്പിങ്ങിന്റെ ഒരു ഗുണവും ദോഷവുമൊക്കെ അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് മേടിക്കേണ്ട തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ഒന്ന് തൊട്ട് നോക്കുകയോ അല്ലെങ്കിൽ ഇട്ട് നോക്കുകയോ ഒന്നും ചെയ്യാന് പറ്റാത്തത് കൊണ്ട് പലപ്പോഴും ഓണ്ലൈന് നിന്ന് മേടിക്കുമ്പോൾ അതിന്റെ സൈസിലൊക്കെ വ്യത്യാസമോ കാര്യങ്ങളോ ഒക്കെ വരാം അതുപോലെ നമ്മൾ നമ്മുടെ അവർ കാണിക്കുന്ന ഒരു പടത്തിലെ പോലെ തന്നെയുള്ളൊരു സാധനം നമുക്ക് കിട്ടണം എന്നില്ല കളറോ അല്ലെങ്കിലതിന്റെ തുണിയോ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം അപ്പോൾ അതൊരു പ്രശ്നമാണ് പിന്നെ ഓണ്ലൈന് ഷോപ്പിങ്ങിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ എവിടേം പോവണ്ട നമ്മുടെ വിരല്ത്തുമ്പിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടുമെന്നുള്ളത് വളരെയൊരു വലിയ സൗകര്യമാണ് ഇപ്പം യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവര്ക്കൊക്കെ ഓണ്ലൈന് ഷോപ്പിംഗ് വളരെ സൗകര്യപ്രദമാണ് പക്ഷേ അതിന്റെയൊരു ദോഷവശം എന്ന് പറയുന്നത് നമ്മൾ കബളി കബളിപ്പിക്കപ്പെടാനുള്ള ഒരു ഒരു സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം തന്നെ നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിര്ബന്ധവും നമുക്ക് ഇല്ല അതുപോലെ തന്നെ നമ്മളൊരു പടം അല്ലെങ്കിലൊരു വീഡിയോ കണ്ട് അതുപോലൊരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് നമുക്ക് കിട്ടിയെന്ന് വരില്ല അതൊക്കെ അതിന്റെ ദോഷവശങ്ങളാണ് ദോഷവശങ്ങളോടൊപ്പം തന്നെ ഒരുപാട് നല്ല വശങ്ങളും ഉള്ളതിനാല് ഒരുപാട് പേര് ഇപ്പോള് ഓണ്ലൈന് ഷോപ്പിങ്ങ്കളൊക്കെ ചെയ്യാറുണ്ട് ഞാനും ചെയ്യാറുണ്ട് പിന്നെ നമുക്കത് നമുക്കിഷ്ടപ്പെട്ടിരുന്നില്ല എങ്കില് സാധനം നമുക്ക് തിരിച്ചയക്കാം എന്നുള്ളത് മറ്റൊരു ഗുണമാണ്